ഹലോ റിസപ്ഷൻ അല്ലേ ഞാൻ റൂം നമ്പർ വൺ സീറോ ടുവിൽ നിന്നാണ് നൂറ്റിരണ്ടിൽ നിന്നാണ് വിളിക്കുന്നത് കേട്ടോ ഞങ്ങളൊരു നാല് പേർ ഉണ്ടായിരുന്നേ ഞങ്ങൾക്കൊരു വൈകിട്ട് എട്ടരയ്ക്കത്തേക്കൊരു വൈകിട്ട് ഇന്ന് വൈകുന്നേരത്തെ ഫുഡ് വേണമായിരുന്നേ നിങ്ങൾക്ക് എന്താണ് സാധനങ്ങൾ എന്നാ ഫുഡ് അവൈലബിൾ ഉള്ളത് പിന്നെ പിന്നെ കറി എന്നാ ഉള്ളത് കു കുടിക്കാനായിട്ട് എന്നാ ജ്യൂസ് ഐറ്റംസ് ഒക്കെ എന്നാ ഉള്ളത് ഇതിൻറെ ഏകദേശം എന്നാ റേറ്റ് ഒക്കെ ചാർജ് എങ്ങനെയാണ് ഫുഡിൻറെ ആ പൊറോട്ടയും ബീഫും പറഞ്ഞോ ആ ആ ആ

ഓക്കെ ഓക്കെ ഓക്കെ ഒരു കാര്യം ചെയ്യ് നമുക്കൊരു നാല് പൊ നാല് പേർക്കുള്ള ഒരു പൊറോട്ടയും ബീഫും മതിയേ വൈകുന്നേരം ഒരു എട്ടര ആകുമ്പോഴത്തേക്കും റൂമിലേക്ക് എത്തിക്കണേ ജ്യൂസ് വന്നിട്ട് പൈനാപ്പിൾ ജ്യൂസ് എടുത്തോ പൈനാപ്പിൾ ജ്യൂസ് എടുത്തോ നാല് പേർക്കും പൈനാപ്പിൾ ജ്യൂസ് എടുത്തോ ഒരു ജ്യൂസിന് അറുപത് രൂപയാണോ ഓക്കെ ഓക്കെ നമുക്കേ ഫുഡ് പൊറോട്ട ഒക്കെ നല്ല മയം ഒക്കെ ഉണ്ടായിരിക്കണേ ഓക്കെ ഓക്കെ ഓക്കെ പിൻ അതുപോലെ തന്നെ ന നല്ല ചൂട് ഉണ്ടാകണം കേട്ടോ ഫ്രഷ് ആയിരിക്കണം ഏ കാരണം ഞങ്ങൾക്ക് പിള്ളേരൊക്കെ ഉള്ളതാണ് അപ്പോഴത്തേക്കേ നല്ല രീതി നല്ല നല്ലതായിരിക്കണം നല്ല ചൂട് ഉണ്ടായിരിക്കണം കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ ഓക്കെ ഓക്കെ ആ പിന്നെ അതിനോടൊപ്പം തന്നെ ജ്യൂസും കൊടുത്തുവിട്ടേര് ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ എന്നാൽ പിന്നെ ഓക്കെ ഓക്കെ താങ്ക് യു കുഴപ്പമില്ല ഇത്രയും സാധനങ്ങൾ മതി ഒരുകു ഒരു കുപ്പി വെള്ളം കൂടെ കൊടുത്തുവിട്ടേര് ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ആ എന്നാൽ പിന്നെ ശരി എന്നാൽ ഓക്കെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇത് മതി സാധനമൊക്കെ ഒരു എട്ടരയ്ക്ക് കഴി വേണ്ട വേണ്ട വേണ്ട ഒരു എട്ടരയാകുമ്പോൾ സാധനം ഇങ്ങ് പോന്നാൽ മതി

ആ ഓക്കെ ഓക്കെ ഓക്കെ ശരി എന്നാൽ